ഞാൻ പാചകത്തിന് ഒരു അരമണിക്കൂർ അതിൽ അത്രയാണ് എടുക്കാറുള്ളത് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടീട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ പാചകത്തിൻ്റെ ആ ഒരു സമയം കൂടുതൽ എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു വിഭവംന്ന് പറയുന്നത് കേക്ക് ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ അടങ്ങേണ്ട കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഒരു തെറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വേണ്ടത്ര ഒരു നല്ലൊരു ഇതല്ല കിട്ടിയതും കാരണം ഞാൻ ഉദ്ദേശിച്ചത് രീതിയിൽ ആയൊരു വിഭവം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ പല ഇതിലും എന്താ പറയാ ഇപ്പം ഫോണിലായിക്കോട്ടെ എല്ലാത്തിലും ഞാൻ നോക്കി യൂട്യൂബിലൊക്കെ ഞാൻ നോക്കിയിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴേക്കും അതിൻ്റെ ഒരു അതിലടങ്ങെണ്ട കുറച്ച് സാധനങ്ങൾടെ എന്താണ് പറയാ കാര്യങ്ങളൊക്കെ കുറച്ച് മാറിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കരിഞ്ഞിട്ടുണ്ട് പിന്നീട് പിന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പം അത് നല്ല രീതിയിൽ ആയിട്ടുമുണ്ട്